ഞാൻ ഇവിടെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കലുണ്ട് ദോശ ചോറ് മീൻകറി അങ്ങനെ ഇറച്ചിക്കറി അങ്ങനത്തെ എല്ലേകറിയും ഉണ്ടാക്കും പക്ഷെ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ബിരിയാണിയാണ് ഇവിടെ എല്ലാവർക്കും കുട്ടിയോൾക്കും ഭർത്താവിനും എല്ലാവർക്കും ഇനിയിപ്പോള് ആരെങ്കിലും ഗസ്റ്റ് വരുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് എനിക്ക് ഇഷ്ടവും അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പം ബിരിയാണിയാണ് അതുകൊണ്ട് ഞാന് ബിരിയാണി തന്നെയാണ് കൂടുതലും ഉണ്ടാക്കാറ് പക്ഷെ ഇങ്ങനെ അത് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും അങ്ങനെ പെട്ടെന്ന് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞുവച്ച് വെള്ളവും അടുപ്പത്തുവച്ച് ഇതൊക്കെ ചേരുവകളൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി പെട്ടെന്ന് അതൊക്കെ വഴറ്റി ഇതാക്കി ശരിയാവുമ്പോഴത്തേന് എത്തും പിന്നെ പിന്നെ അരിക്കുള്ള വെള്ളവും അവിടെ വെച്ചാല് പെട്ടെന്ന് അരി വേവുമ്പോഴത്തേന് പിന്നെ അത് ഊറ്റി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുത്ത് പിന്നെ ആ ജാതിക്കേൻ്റെ ആ പിന്നെ പൊടിയും അത് അതാണ് കൂടുതല് അതില് മെയിൻ നല്ലത് ബിരിയാണീൻ്റെ വാസന കിട്ടാന് അതിൻ്റെ വാസനയും അതിലൊരു ചോറൊക്കെ ഊറ്റിയിട്ട് അതിങ്ങനെ ദമ്മാക്കി ഇട്ട് ചെമ്പ് പൊട്ടിക്കുന്ന സമയത്തൊക്കെ നല്ല വാസന ഇങ്ങോട്ട് വരുമ്പോള് ഓഹ് എന്താണ് അതിന്റൊരു സ്മെല്ല് നാവിലൊക്കെ അങ്ങട്ട് വെള്ളം ഊറും അങ്ങനത്തെ ഇതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഭക്ഷണത്തില് നല്ല ഇഷ്ടമായിട്ട് വരുന്നത് ഇതാണ് പിന്നെ പെട്ടെന്ന് എല്ലാ പണികളും കഴിയും അങ്ങനത്തെ ഭക്ഷണ അതായതുകൊണ്ട്